ഞാൻ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും എന്താ പറയുക മലയാളം തന്നെയായിരുന്നു ഇഷ്ടം കാരണം മലയാളം എന്തെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക പൊതുവെ നമ്മൾ സംസാരിക്കുന്നത് ചെറുപ്പം തൊട്ട് സംസാരിച്ച് വരുന്ന ഒരു ഭാഷതന്നെയാണ് കാരണം നമുക്ക് മനസിലാക്കാനായാലും സംസാരിക്കാനായാലും എളുപ്പമുള്ള ഒരു ഭാഷ മലയാളം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലും എന്താ പറയുക മലയാളം തന്നെയായിരുന്നു കൂടുതലും എന്താ പറയുക സാറമ്മാർ പഠിപ്പിക്കുന്ന രീതിയൊക്കെ നമുക്ക് എളുപ്പം തന്നെ പഠിക്കാം ഓരോ കവിതകൾ ആയിക്കോട്ടെ കഥകൾ ആയിക്കോട്ടെ അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളും നമുക്ക് നല്ല വ്യക്തവും കൃത്യവുമായിട്ട് പഠിപ്പിച്ച് തരാൻ ഒക്കെ സാറന്മാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മലയാളത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ ഒരുപാട് എന്താ പറയുക പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന കവികള് എന്താ പറയുക കഥാകൃത്തുകള് എല്ലാവരേയും പറ്റി വ്യക്തമായിട്ട് പഠിപ്പിച്ച് തരും പിന്നെ അവര് എഴുതിയ കവിതകൾ ഓരോത്തിൻ്റെയും അതായത് മലയാളത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ കേട്ടുവരുന്ന ഓരോ ഇതിൻ്റെയും അർത്ഥം അതായത് അവർ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്ന ഓരോ വേഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ല വ്യകതമായിട്ട് മനസ്സിലാക്കാൻ ഒക്കെ സാധിക്കുന്നു അതിൻ്റെ മീനീങ്ങുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരാനും മലയാളം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അതേസമയത്ത് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒക്കെ എളുപ്പമുള്ള വിഷയം തന്നെയാണ് എന്നാലും മലയാളം പഠിക്കുന്ന പോലെ എന്താ പറയുക അത്ര ഒരു ഇത് എന്താ പറയുക ഇതിന് കിട്ടിയിരുന്നില്ല കാരണം എനിക്ക് മലയാളം തന്നെയാണ് ബെറ്ററായിട്ട് തോന്നിയിരുന്നത്